നിരവധി വികാസങ്ങളുടെ കടന്നുപോയിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം എന്ന് പറയപ്പെടുന്നത് നമ്മുടെ മലയാളം എന്ന് പറയുമ്പോൾ ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും അവസാനം രൂപപ്പെട്ട ഒരു ഭാഷ എന്നാണ് നമ്മുടെ മലയാളത്തിനെ പറയപ്പെടുന്നത് ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിലാണ് നമ്മുടെ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി മാറുന്നത് അതിൽ നിന്നും ഒരു ആധുനിക ഭാഷയായി മാറുന്നത് ആധുനിക ഒരു മലയാളഭാഷയായി മാറുന്നത് നമ്മുടെ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കാലഘട്ടത്തിലാണ് മുപ്പത് അക്ഷരങ്ങൾ ഉള്ള ഒരു വട്ടെഴുത്തിൽ നിന്ന് നമ്മുടെ മലയാളത്തിനെ അൻപത്തി ഒന്ന് അക്ഷരങ്ങളുള്ള മലയാള ലിപിയാക്കി കൊണ്ടുവരുന്നത് എഴുത്തച്ഛൻ്റെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏത് വിജ്ഞാന ശാഖയെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു കഴിവ് നമ്മുടെ മലയാളത്തിനുണ്ട് കമ്പ്യൂട്ടറിൽ ആയാലും ശാസ്ത്രസാങ്കേതിക രംഗത്തായാലും നമ്മുടെ മലയാളം വളരെയധികം ഒരു വളർച്ച പ്രാപിച്ച ഒരു കാലഘട്ടമാണ് ഇന്ന് അതേപോലെ തന്നെയാണ് പല പല ലിപികൾ ലിപികൾ തന്നെ നമ്മൾ പണ്ടെഴുതുന്ന ഒരു ലിപിയല്ല നമ്മൾ ഇപ്പോൾ യു ഉപയോഗിക്കുന്നത് ഒരു ലിപി നമ്മൾ പണ്ട് എഴുതുന്ന ലിപി ഇപ്പോഴത്തെ പുതുതലമുറയിൽ എഴുതിയാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല അതേപോലെ ഒരുപാട് വികാസങ്ങൾ നമ്മുടെ മലയാളം ഭാഷയ്ക്ക് ഉണ്ട് നമ്മുടെ ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അവിടെയെല്ലാം ഒരു മലയാളികൾ കാണും അതേപോലെ നമ്മുടെ മലയാളവും കാണും ഇപ്പോൾ നമ്മുടെ നാല് കോടിയിലധികം ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഭാഷ കൂടിയാണ് നമ്മുടെ മലയാളം അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ മലയാളത്തിനെ ശ്രേഷ്ഠ ഭാഷ എന്ന പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു ഇതെല്ലാം നമ്മുടെ മലയാളം ഭാഷയ്ക്ക് കാലക്രമേണ ഉണ്ടായ ഒരു വികാസം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്